ഹലോ ഓക്കേ ഓക്കേ മാം ഇവിടെ ആലപ്പുഴയിൽ കിട്ടും നല്ല സീ ഫുഡ് അതാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും മ് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ട് പിന്നെ പലതരം ഉള്ളതുണ്ട് കക്ക ആ പിന്നെ പ്രോൺസ് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അത് എപ്പോഴും ഉണ്ടാവും കേട്ടോ എപ്പോൾ വേണമെങ്കിലും തരാം ആ എപ്പോൾ എപ്പോഴും ഉണ്ടാവും മ് അത് അവർ ഫ്രഷ് പിടിച്ചെടുത്തിട്ട് അപ്പം തന്നെ കുക്ക് ചെയ്യുന്നത് ആണ് മ് മ് ആ ഇപ്പം നമ്മൾ ബോട്ടിലൊക്കെ അതിന് ബോട്ട് ഒക്കെ പോവുവാണെങ്കിൽ അവർ അവിടുന്ന് തന്നെ പിടിച്ച് അവിടുന്ന് തന്നെ കുക്ക് ചെയ്ത് തരും നമുക്ക് ഇഷ്ടമുള്ള മീൻ അപ്പം തന്നെ പിടിച്ച് മ് അപ്പോൾ അതായത് സ്റ്റേയും അക്കോമഡേഷനും കാര്യങ്ങളും പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഓക്കേ നമുക്ക് മൂന്ന് ദിവസത്തെ ഒരു പാക്കേജ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളും കറങ്ങാൻ ഒക്കെ പറ്റും അവിടെ അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് പാക്കേജിന് വരുന്ന എമൗണ്ട് മ് മ് ഓ സീ ഫുഡ് ഇൻക്ലൂഡ് ആണ് ആ അതെ അതെ ഇല്ല നമ്മൾ പിക്ക് ചെയ്തോളും കേട്ടോ മ് ഞങ്ങൾ പിക്ക് ചെയ്തോളും മ് നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞ് കൃത്യമായിട്ടൊന്ന് പറയുവാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഇതാക്കാം മ് ഓക്കേ ഓക്കേ ഓക്കേ മാം മ് ആ ആ ഓക്കെ തീർച്ചയായും പോരെ എന്നാണ് വരുന്നത് എന്നൊന്ന് പറയണേ ആ ഓക്കേ ആ ഓ ഈ നമ്പറിൽ വിളിച്ചാൽ മതി മ് ശരി മ് താങ്ക് യൂ